വീക്ഷണത്തിന് കാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമങ്ങളാണ് ശ്രവ്യ മാധ്യമങ്ങളിൽ റേഡിയോ അടക്കമുള്ള പാട്ടുകൾ ആൽബങ്ങളൊക്കെ ആൽബങ്ങൾ അടക്കമുള്ള

ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണ് ഇത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നതാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ശരിക്കും ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് വെച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെയും അവതരിപ്പിക്കാൻ സാധിക്കും എന്ന് അർത്ഥമില്ല ഉചിതമായ വിധത്തിൽ വേണം അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുവാനായി വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന രീതിയില് വായിൽ തോന്നുന്നത് എന്തും പറയുവാൻ സാധിക്കുന്നതല്ല നമ്മൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമ്മളുടെ മനസ്സിലെ ആശയങ്ങളോട് ആശയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും അതിനാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് ഇവിടെ

വക്കീലിനോടും എന്ത കാര്യവും തുറന്ന് പറയണം സത്യസന്ധമായി പറയണം എന്നാണ് നമ്മൾ പറയുക ഇതിൻ്റെ കാരണം ആ സ്വകാര്യത കീപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് സ്വകാര്യത സൂക്ഷിക്കപ്പെടേണ്ടതാണ്

ചില നയങ്ങളുണ്ടായിരിക്കാം ഈ നയങ്ങൾ അനുസരിച്ച് മാത്രമേ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കണ്ട സാധിക്കുകയുള്ളു അപ്പോൾ മാധ്യമങ്ങൾ സ്വകാര്യത വെളിപ്പെടുത്തിയാൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ് നമ്മൾ എപ്പോഴാണ് തുറന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ

ഒരു കുമ്പസാരത്തിൽ ഒരു വൈദികനോട് നമ്മുടെ രഹസ്യങ്ങൾ തുറന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് അവിടെ സംരക്ഷിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്

ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ പ്രതികരണശേഷി നമ്മൾക്ക് പ്രതികരിക്കുവാനുള്ള ഒരു വേദി ഒരു അവസരം മാധ്യമങ്ങൾ തുറന്നു തരുന്നു ഇത് പല തരത്തിലാണ്

കേൾക്കുകയും അത് റെക്കാർഡ് ചെയ്യുകയും അത് പ്രസിദ്ധപ്പെടുത്തേണ്ടത് ആണെങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്തുകയും പ്രചരിപ്പിക്കേണ്ടതാണെങ്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഒരു ജനകീയ ഫോർമുല രൂപപ്പെടുത്തുന്നതിന് സഹായകരമായി മാറും ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോൾ വാർത്തകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് സ്വകാര്യതയിൽ സംരക്ഷിക്കുവാനും

പ മുൻപ് പത്രങ്ങൾക്കായിരുന്നു പ്രാധാന്യം നൽകയിരുന്നത് എങ്കിൽ ഇന്ന് വ്യത്യാസം വന്നിരിക്കുന്നു ദൃശ്യ മീഡിയ ആ സ്ഥാനം കൈയ്യേറി